നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുളെന്നു പറയണത് കൃഷിയാണ് പണ്ടത്തെക്കാലത്തെ എല്ലാവരും പാടം പാട്ടത്തിനടുത്തും കൃഷി ചെയ്ത് ഒക്കെ അരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇ എന്നു വെച്ചു കഴിഞ്ഞാൽ അന്ന് വിഷാംശം കലര്ന്ന ഭക്ഷണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ സംസ്കാരത്തിൽ കൂടുതൽ വിഷാംശങ്ങൾ കലര്ന്നതും എന്നു വെച്ചാൽ കഴിഞ്ഞാൽ ഇന്നത്തെക്കാലത്ത് ആര്ക്കും കൃഷി ചെയ്യാന് താത്പര്യമില്ല എല്ലാവരും വലിയ വലിയ തൊഴിലുകൾ നോക്കി പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെക്കാലത്ത് കൃഷി ചെയ്താൽ അതിനൊരു ലാഭവും കാര്യങ്ങളും ഒന്നും കിട്ടാനില്ല എന്നു വെച്ചാൽ കൃഷി ചെയ്താലും അത്ര ഒരു മെച്ചപ്പെട്ട ഒരു ജീവിത സമ്പ്രദായം കെട്ടിപ്പിടിക്കാന് നമ്മളെക്കൊണ്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഇന്നത്തെക്കാലത്ത് കൃഷി ചെയ്യുന്ന കാര്യത്തിൽ ആര്ക്കും താത്പര്യമില്ല എന്നു വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൽ നിലനിന്ന് പോയിരുന്ന പല കാര്യങ്ങളും പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കയാണ് അപ്പം അത് കാരണം ഇതിപ്പം കൃഷി നല്ലൊരു നല്ലൊരു സംഭവമാണ് പക്ഷെ അത് ഇന്നത്തെക്കാലത്തെ സംസ്കാരത്തിൽ തുടര്ന്നു കൊണ്ടു പോകാന് പലര്ക്കും ബുദ്ധിമുട്ട് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ എല്ലാ ആളുകള്ക്കും ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്നു വെച്ചാല് ഇന്നത്തെക്കാലത്ത് കൃഷി കൊണ്ട് യാതൊരു വിധ മെച്ചപ്പാടും നമുക്ക് കൂടുതൽ ലാഭവും കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് മറ്റുള്ള പുതിയ പുതിയ ജോലികള് തേടി ആളുകൾ അന്യരാജ്യത്തേക്ക് പോയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം കൃഷി നിലച്ചു പോയി